ഈയൊരു വിഷയം ഈ ഈ കാലഘട്ടത്തിലേറ്റവും പ്രസക്തമാണ് ചോദ്യം മൊബൈൽ ഫീഡ്ബാക്ക് അതാണോ അതിൽ റേഡിയോ അല്ലെങ്കിൽ പത്രമാസ മാധ്യമങ്ങൾ അവ എന്നും സത്യസന്ധമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഇത് ഏതാണ് മിച്ചം എന്നുള്ളൊരു ചോദ്യമാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം തേടുമ്പോഴ് റേഡിയോ പത്രമാധ്യമങ്ങൾ ഒക്കെ കുറേക്കൂടി കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള മാധ്യമമായി ആയിരുന്നു പണ്ട് മുതലേയുള്ള മാധ്യമമാണ് ആ മാധ്യമം ധർമ്മം നിർവഹിക്കുന്നവർ വളരെ സത്യസന്ധമായ രീതിയിൽ വാർത്തകളെ മനസ്സിലാക്കി എഴുതുവാനും ഒക്കെ പിന്നെ ഈ ഈ ആധുനിക കാലഘട്ടത്തിൽ എന്നാ ആ ഒരു കാര്യത്തിൽ കുറേക്കൂടി വെള്ളം ചേർത്തിട്ടുണ്ട് എങ്കിൽപ്പോലും പണ്ട് കാലംത്ത് ഉള്ള പത്രമാധ്യമങ്ങളും അതല്ലെങ്കിൽ റേഡിയോയുമൊക്കെ വാർത്തകൾ കൊടുക്കുന്ന കാര്യത്തിൽ നിഷ്പക്ഷത അല്ലെങ്കിൽ സത്യസന്ധത ഇതൊക്കെ പുലർത്തിയിട്ടുണ്ട് ആ ഒരു കാര്യം അത് പണ്ടത്തെ രീതി അതായിരുന്നു എന്നാലിന്ന് ഈ റേഡിയോ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിൽ ഒക്കെ അത്രത്തോളം വാർത്തകൾ സത്യസന്ധമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതിൽ ഇതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് ഈയൊരു സത്യന്ധതയെയും മൂല്യങ്ങളെയും നിഷ്പക്ഷതയേയുമൊക്കെ തകിടം മറിച്ച്കൊണ്ടാണിന്ന് മൊബൈല്കള് അതിൻ്റെ ഫീഡ്ബാക്ക്കൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മൊബൈലിൽ വരുന്ന ഒരു വാർത്ത ശരിയാണോ അല്ലെങ്കിൽ നുണയാണോ അല്ലെങ്കിൽ അതിനകത്ത് സത്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇന്നും പലപ്പോഴും വ്യക്തതയില്ല വ്യക്തമായിട്ട് സത്യസന്ധമായ വാർത്തകൾ കൊടുക്കുന്ന കാര്യത്തിൽ ഈ മാധ്യമങ്ങൾ ഒക്കെ ശരിക്കും നിഷ്പക്ഷത പുലർത്തേണ്ടതാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഇല്ല അറിവ് കൊടുക്കാനും അല്ലെങ്കിൽ വിജ്ഞാ ബോധവൽക്കരിക്കാനും അതല്ലേൽ വിനോദം കൊടുക്കാനും പഠിപ്പിക്കാനുമൊക്കെയുള്ള ഈ മാധ്യമങ്ങൾ ഈ മാധ്യമ ധർമ്മങ്ങളെ തമസ്കരിക്കുന്ന നിലപാടുകളാണ് പലപ്പോഴും ഈ മൊബൈൽ പോലുള്ള മാധ്യമങ്ങളുപയോഗിക്കുന്നത് മൊബൈലിൽ ഒരു കാര്യം വന്നുകഴിഞ്ഞാലത് അത് ശരിയാണോ അല്ലയോ നമുക്കത് അതൊന്ന് അതൊന്നും മറ്റൊരു ഒരു വാട്സപ്പില് വരുന്നൊരു മെസ്സേജ് അത് സത്യമാണോ അല്ലെങ്കിൽ അത് നുണയാണോ എന്നുള്ള അസത്യമാണോ എന്ന കാര്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ ആണ് പലപ്പോഴും അടുത്ത ഒരു വാട്സപ്പിലേക്ക് അടുത്ത ഒരാൾക്കത് ഫോർവേഡ് ചെയ്ത് കൊടുക്ക ആ ഈയൊരു കാര്യത്തിൽ എന്നാ ഒരു വ്യക്തത വരുത്തിയതിന് ശേഷമേ ആ ഒരു ഒരു പോസ്റ്റ് കിട്ടുന്നത് അത് വ്യക്തമാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ എന്നാ അടുത്തതിലേക്ക് അടുത്ത ഒരു ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ അടുത്ത വ്യക്തിക്കോ അത് ഫോർവേഡ് ചെയ്യാൻ സാധിക്കൂ എന്നുള്ള ഒരു അങ്ങനെ സാധിക്കണം അത് ശരിക്കും പക്ഷെ അത് പലപ്പോഴും അത് എന്നാ കഴിയാറില്ല അതുകൊണ്ട് ചോദ്യമിതാണ് പത്രമാധ്യമങ്ങളാണോ റേഡിയോയാണോ വാർത്തയുടെ കാര്യത്തിൽ പിന്നെ വാർത്തയുടെ കാര്യത്തിൽ സത്യസന്ധത പുലർത്തുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഉത്തരം പറയാൻ സാധിക്കും റേഡിയോയും പത്രമാധ്യമങ്ങളുമാണ് മൊബൈല്കളെ ടെ ഫീഡ്ബാക്ക്കളെക്കാൾ കുറേക്കൂടി സത്യസന്ധതയും നീതിയും ബോധവും നിഷ്പക്ഷതയും പുലർത്തുന്നത് എന്ന് വ്യക്തമായിട്ട് പറയാൻ കഴിയും താങ്ക് യൂ